യെസ് കം ഇൻ ഗുഡ് മോർണിംഗ് എന്താണ് വേണ്ടത് ഓക്കെ ശ്രുതി എന്ത് പറ്റി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലേ എന്ത് പറ്റി ഇപ്പോൾ ഇവിടുന്ന് മാറാൻ ആ ആ ഓക്കെ അച്ഛന് എവിടെയാണ് ജോലി റെയിൽവേയിലോ ചെന്നൈയിൽ എവിടെ ഉള്ള ഏത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മാറുന്നത് ആ ഓക്കെ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ എടുക്കാൻ പോവുന്നത് ആ നല്ല സ്കൂൾ ആണത് ഓക്കെ ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് നാൾ ആയത് കൊണ്ട് തന്നെ കുഴപ്പം ഇല്ല ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തരാം എന്നാണ് ഇവിടെ നിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നത് ആ ആ ഓക്കെ ആ താമസം ഒക്കെ അവിടെ ശരി ആയോ ഓക്കെ ഓക്കെ പിന്നെ ക്ലാസ് ടീച്ചറ് തന്ന ആ ഒരു ലെറ്ററ് കൊണ്ട് വന്നിട്ടുണ്ടോ ആ അഡ്മിഷൻ നമ്പർ ഒന്ന് പറയൂ

ഡബിൾ ടു ഓക്കെ ഈ ഈ ക്ലാസ് ടീച്ചർ ആരാണ് ഏതാണ് ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ ആ ഓക്കെ ഞാൻ ഇവിടുന്ന് ഒരു ലെറ്ററ് തന്ന് വിടാം അത് ഓഫീസിൽ കൊണ്ട് പോയി കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വന്ന് മേടിക്കണം പാരൻറ്റ്സും ആയിട്ട് വേണം ഇനി വന്ന് ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ ആ പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ ആ ശരി പൊക്കോളൂ